ഹലോ ഇന്ത്യൻ ബേക്കറി അല്ലേ അവിടെ കേക്ക് അവൈലബിളാണോ എങ്ങനെയാണ് അതിൻ്റെ ഫണ്ടൊക്കെ വരുന്നത് ആ പൈസയൊക്കെ എങ്ങനെയാണ് വരുന്നത് റെഡ് വെൽവറ്റിനൊക്കെ എത്രയാകും

ഓ ബ്ലാക്ക് ഫോറസ്റ്റോ ആ വൈറ്റ് എല്ലാത്തിനും അതുതന്നെയാണോ വേറെ ഏതൊക്കെ ഫ്ലേവറുണ്ട്

ഹലോ കേള്ക്കുന്നില്ലേ വേറെ ഏതൊക്കെ ഫ്ലേവറുണ്ട് ഹോം ഡെലിവറി അവൈലബ്ളാണോ ആ അതെങ്ങനെയാണ് എക്സ്ട്രാ ഫണ്ട് വരുന്നുണ്ടോ നൂറ് രൂപയോ ഇത് ശരിക്കും എവിടെയായിട്ടാണ് കട്ടപ്പന ജംഗ്ഷനില് തന്നെയാണോ അതോ ആ വീടൊക്കെ ഉള്ളിലേക്ക് കുറച്ച് കയറിയിട്ടുതന്നെയാണ് അഡ്രസ്സ് എനിക്ക് വാട്സ്സപ്പ് ചെയ്തേക്ക് എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഹാഫ് കെ ജി മതി

ഹാഫ് കെ ജിക്ക് അറുന്നൂറ് അഞ്ഞൂറെന്നല്ലെ ആ ഹോം ഡെലിവെറി കൂടി കൂട്ടിയിട്ട് അപ്പോള് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയില് അത് പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങള് നേരത്തെ ഉണ്ടാക്കിത്തരുമോ ആ അപ്പം ഇല്ല അപ്പോള് ഡിസൈന് അനുസരിച്ച് പ്രൈസില് ഡിഫ്രൻസ് വരുമോ സെയിം പ്രൈസ് തന്നെയായിരിക്കുമോ ഇപ്പോള് നമുക്കൊരാൾക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കില് ഗിഫ്റ്റായിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാനൊക്കെയാണെങ്കില് അതിൻ്റെ അറേൻജ്മെൻറ്റ്സും കാര്യങ്ങൾക്കുമൊക്കെ ആ അപ്പോള് ഫണ്ടൊക്കെ എങ്ങനെയാണ് ഇപ്പോള് നമ്മള് അവിടെ വന്നിട്ട് എല്ലാം കാര്യങ്ങളും പറയണോ അതോ ഓൺലൈനായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്താല് മതിയോ ആ അപ്പോള് ഇങ്ങനെ നില നിലയായിട്ട് കേക്കുകള് അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ഉണ്ടാക്കിക്കൊടുക്കുന്നുണ്ടോ മിനി കേക്ക് മിനി കേക്കൊക്കെ വരുമ്പോള് ഏതൊക്കെ ഫ്ലേവറാണ് വരുന്നത് മിനി കേക്ക് എടുക്കുന്നില്ലേ ഓ അല്ല ഓഫറും കാര്യങ്ങളുമൊക്കെയുണ്ടോ ആ എങ്കില് എങ്കില് ഞാൻ പറഞ്ഞതുപോലെതന്നെ എനിക്കൊരു ഹാഫ് കെ ജിയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് മതി അത് കഴിയുമ്പോള് ഞാൻ വേറെയൊരു കേക്കിന് കൂടെ ഓർഡര് തരാം അപ്പോള് അത് കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മതി അപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചേക്കാം ആ ആ ഒക്കെ ഞാൻ എങ്കില് അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ അയച്ചേക്കാം ഇപ്പം അഡ്രസ്സ് അയക്കുന്ന നമ്പറിലേക്ക് എനിക്ക് കേക്ക് ഡെലിവറി ഒരു അഞ്ച് മണിക്കുള്ളില് അയക്കണം ആ ശരി എങ്കില് ഒക്കെ ബൈ